ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് അതായത് പലരീതിയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാമും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് മലമ്പുഴ ഡാമുണ്ട് കക്കയം ഡാംമ് അങ്ങനത്തെ പല രീതിയിലുള്ള ഡാംമ്കള് കാര്യങ്ങളൊക്കെയുണ്ട് ഇവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികള് പല രീതിയിലുള്ള വേസ്റ്റും കാര്യങ്ങളക്കെ കൊണ്ട് വന്ന് ഇടുന്നൊരു പ്രവണതയുണ്ട് അപ്പം അത് നമ്മള് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇതില് നടപടിയിൽ നിന്ന് അവർക്ക് അവര് ഒരു വേസ്റ്റ് പോലത്തൊരു സംഭവം ഒരു ഇപ്പം ഇപ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബാരിക്കേഡ് പോലെത്തൊരു അതായത് പട്ടിക്കൂട് പോലെത്തൊരു സംഭവം കൊണ്ട് പോയി ഒര് ഓരോ സ്ഥലത്ത് വക്കുന്നുണ്ട് അപ്പം ഇതില് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനകത്ത് ഒന്ന് അങ്ങനെ കൊണ്ട് വയ്ക്കുവാണെങ്കില് അവരെല്ലാവരും ആ വേസ്റ്റ് അതിനകത്തിട്ടിട്ട് പിന്നെ ഹരിതസേനക്കാര് വന്നിട്ടത് നിർമ്മാർജ്ജനം ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളും അപ്പം അങ്ങനത്തെ കുറച്ച് നടപടിയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കില് കുറച്ച് കൂടെ നല്ലതാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പം അല്ലാത്ത അതായത് ഇപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത നടപടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒന്നാമത്തത് ഇപ്പം പാർക്കിങ് സൗകര്യമൊക്കെ വളരെ കുറവാണ് അപ്പം അതിനൊക്കെ നല്ല രീതിയിലൊള്ളൊരു പാർക്കിങ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെ ആ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം